ആ ഫൈവ് സ്റ്റാർ അശ്വതി ഹോട്ടൽ

ആ ആ

അതെ ആ എന്താണ് മസാല ദോശയോ എത്ര എത്രയാൾക്ക് വേണ്ടി വരും വേറെ ഇഡ്ഡലിയുണ്ട് ചപ്പാത്തിയുണ്ട് വട ഉണ്ട്

കുടിക്കാൻ ചായ കാപ്പി മാൾട്ട് ഏതാവും തന്നേ കാപ്പിയോ ആ ആ കൊണ്ടുവന്നാൽ കസ്റ്റമർ എത്രയാണെന്ന് പറഞ്ഞ് ഏത് സമയമെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ അവിടെ കൊണ്ടുത്തരാം രാവിലെ എത്ര മണിക്ക് വേണ്ടി വരും അതെയോ അപ്പം ആ എത്തിക്കണമല്ലേ ആ ആ ആ അത് ടൈം പറഞ്ഞെങ്കിൽ നമ്മൾ സമയത്ത് ആ എത്തിക്കും എത്ര ആൾക്ക് വേണ്ടന്നുള്ള ഫുഡ് ആ നമ്മൾ അഞ്ച് മണിക്ക് തുറക്കുന്നു ആ ഓ ആ അഡ്രസ്സ് അയച്ച് തന്ന് ആയി ആയി ആ വട ഇഡ്ഡലി ഇഡ്ഡലി വേണോ വേണ്ട വേണ്ട കറി കറി സാമ്പാർ ചട്നി ചീരയില്ല ആ ഉം ആ ആ ആ ഉം ഉം അതെല്ലാം ഉണ്ട് അത് ഇത്ര സമയം ആവുമ്പോൾ എത്തിക്കാം എന്നാ ഉം ആ ആ ആ ആ ചായയ്ക്ക് പത്ത് രൂപയാവും അത് ടോട്ടൽ ആവുമ്പോൾ അത് കുറച്ച് കുറച്ചിട്ട് തെരാം ടോട്ടലി ചായയ്ക്ക് പത്തിരുപതാളില്ലാതെ മസാലയ്ക്ക് ഒന്നിന് മുപ്പത് ഉറുപ്പിക ഉണ്ട് ആ അത് ഹോൾസെയിൽ റേറ്റ് പിന്നെ ആ ആ കുറേ എടുക്കുമ്പോൾ കുറച്ച് കുറച്ചിട്ട് ശരിയാക്കി തരാം അത് ഉം ടൈം ആവുമ്പം അവിടെ എത്തിക്കാം എത്ര സമയത്ത് ആ ഉം അത് എത്തിച്ച് തരാം ആ ആറര ആവുമ്പം ആറര ആവുമ്പം എത്തിക്കാം അവിടെ ആ ശരി ആ ശരിയുള്ള അഡ്രസ്സ് വഴിയെല്ലാ പറഞ്ഞെങ്കിൽ നേരെ എത്തിക്കാം അവിടത്തേക്ക് തന്നെ ഉം ആയി ആയി ആ ശേഷം ഒന്നിച്ച് ആ ശേഷം ഒന്നിച്ച് കിട്ടിയെങ്കിൽ നല്ലത് ആ ഓക്കെ ആ ആയി ആയി ആ ആ ആ ഭക്ഷണം എല്ലാം കഴിച്ചവർ നല്ല ഇത് പറയുന്നു ഉം ആ പിന്നെ ഇപ്പോൾ നിങ്ങൾ കൊണ്ടുപോയിട്ടാണ് നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ പിന്നെയുള്ളൊരു കച്ചവടം നമുക്ക് കിട്ടും ഉം ഉം ആ ആയി ആ അതെ അതെയതെ ആ ഓക്കെ ആ ഓ ആയി ഉം ഓക്കെ